എൻറെ കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ജൈവവളങ്ങളെ കുറിച്ചാണ് ജൈവവളങ്ങൾ വളങ്ങളെന്നു പറയുമ്പോൾ എല്ലുപൊടിയാണ് ഞാൻ ചെടികൾക്കും കൃഷികൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് എല്ല് പൊടി എന്ന് പറയുമ്പോൾ എല്ല് വേവിച്ചും അല്ലാതെയും പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് എല്ലുപൊടി എന്ന് പറയുന്നത് അതിൽ ധാരാളം നൈട്രജനും ഫോ ഫോ ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ളതിനാൽ അതിൽധാരാളം ഉപയോഗങ്ങളുണ്ട് അതുകൊണ്ടു തന്നെ നമ്മുടെ സ കൃഷികളായിരുന്നാലും സ ചെടികളായിരുന്നാലും ന നല്ലതുപോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം അതുമാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല കാരണം പട്ടിയായിരുന്നാലും പൂച്ചയായിരുന്നാലും അങ്ങനെ ധാരാളം ഇത് ഇത് പഴം പട്ടി ആയിരുന്നാലും പൂച്ചയായിരുന്നാലുമൊക്കെ അത് എല്ലുപൊടി ആയതുകൊണ്ട് അത് പിന്നെ ചെടികളെയൊക്കെ നശിപ്പിക്കാൻ കൃഷി ആയിരുന്നാലും അത് നശിപ്പിക്കുന്നു അതിനാൽ നമ്മൾ ഇത് എല്ലുപൊടി ഉപയോഗിക്കുമ്പോൾ വേപ്പിൻ പുണ്ണാക്കും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം ആഡ് ചെയ്യുമ്പോൾ ഈ വേപ്പിൻ പുണ്ണാക്കിലുള്ള എൻ എണ്ണയുടെ അംശവും മണ്ണിലുള്ള ജൈ കീടാണുക്കളും ഇത് നശിക്കാൻ അത് ഇടയാകുന്നു അതുകൊണ്ടുതന്നെ നമ്മുടെ കേരളത്തിലെ മണ്ണിട മ മണ്ണ് നമ്മുടെ കേരളത്തിലുള്ള മ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുന്നത് ജൈവവളങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻറെ കൃഷിക്ക് ജൈവവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ പിന്നെ രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ നമ്മൾ അത് നമുക്ക് മാരകമായ അസുഖങ്ങളുണ്ടാക്കും അതിനാൽ രാ രാസവസ്തുക്കൾ ഞാൻ ഉപയോഗിക്കാറില്ല ജൈവവളങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ല വളങ്ങളെന്ന് പറയുന്നത്